ആ ആ ആ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി

ആ ആ ആ ആ ശരിയാണ് ആ അത് നല്ല കാര്യമാണ് പിന്നെ രാവിലെ ഇന്ന് രാവിലെ വന്നിട്ട് ടോയ്ലറ്റൊക്കെ അങ്ങനെ നോക്കിയായിരുന്നോ ആ ആ ആ മ്മ് മ്മ് ആ ആ ആ അല്ലല്ല ആ നമ്മളിപ്പോളൊന്നും ചെയ്യേണ്ട പി ടി എ കാരെ വിളിക്കാം അവരും കൂടെ കൂടി ചെയ്യുന്നതാണല്ലോ നല്ലത് അപ്പോള് അവരെ അവരെയും കൂടെ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു സൗകര്യമുള്ള ദിവസം അവരെ വിളിച്ച് അവരെയും കൂടെ കൂട്ടി നമുക്ക് ചെയ്യാം

ആ ആ അത് നല്ലതാണ് ആ എന്നിട്ട് ചോദിച്ചിട്ട് അവരെയും കൂടെ വിളിക്കാം നമ്മള് തന്നെ ചെയ്താല് തീരില്ലായിരിക്കും നിറയെ പൊടിയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോള് അവരെയും കൂടെ വിളിച്ചു ചെയ്യിപ്പിക്ക് ആ അവിടെ അവിടെ കിടക്കുന്ന ഉപകാരമുള്ള സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് പഴയ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വെയ്ക്കാം പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗമില്ലാത്തത് ഉണ്ടെങ്കില് അത് നമുക്ക് മറ്റേ ഈ ആക്രിക്കാർക്ക് കൊടുക്കാമല്ലോ ഒട്ടും ആർക്കും കൊടുക്കാന് പറ്റാത്തത് കളയാം ആ ടീച്ചര്മാരെല്ലാം കൂടെ വന്നിട്ട് സ്ഥലം ചോദിക്കാം അവരോട് എവിടെയാണ് അവർക്ക് എളുപ്പം എടുക്കാന് പറ്റുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ അത് നമുക്ക് അതനുസരിച്ച് ടീച്ചർമാര് കൂടെ വന്നിട്ട് അവരുടെ അഭിപ്രായവും കൂടെ ചോദിച്ചിട്ട് വെയ്ക്കാം ആ ആ ആ അത് കുഴപ്പമില്ല അത് ചെയ്തോ നമ്മള് അതനുസരിച്ചിട്ടങ്ങ് ചെയ്താല് മതി അപ്പോള് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ഒത്തിരി ചെയ്യാനില്ലല്ലോ

ആ ഗാർഡൻ അതവർക്ക് ഇത് നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം എന്നിട്ട് ഗാർഡനില് ഒന്ന് ക്ലീനാക്കിയിട്ട് ഒരാളെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കാം അതുകഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ടീച്ചേഴ്സുമായിട്ട് ചെയ്യാനുള്ളതല്ലേ ഉണ്ടാവുകയുള്ളൂ ആ ആ പുതിയ എന്തെങ്കിലും ചെടി വാങ്ങിച്ച് നടണമെങ്കില് അതുകൂടെ ആ അത് മേല്ലെ ആ ആ ആ പാസ്സുകാർക്ക് ഡ്യൂട്ടി കൊടുക്കാം അവരോട് വീട്ടില് നിന്നുള്ള ചെടികളൊക്കെ കൊണ്ടുവന്ന് അത് ഇത്തിരികൂടെ ഭംഗിയാക്കാം വേണമെങ്കില് പറയാം അതാകുമ്പോള് അവര് തന്നെ ശ്രദ്ധിച്ചുകൊള്ളും അവരുടെ ചെടിയാകുമ്പോള് അവര് ഇത്തിരി കൂടെ ശ്രദ്ധിക്കും കൊണ്ടു നട്ടതുകൊണ്ട് അവര് ശ്രദ്ധിച്ചുകൊള്ളുമല്ലോ ആ ആ മാം ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നനയ്ക്കുന്നത് അവര് തന്നെ നനച്ചുകൊള്ളട്ടെ കുഴപ്പമില്ല ആ പിള്ളേര് തന്നെ എന്നിട്ട് ശനിയാഴ്ച ഇല്ലാത്ത ദിവസം നനച്ചാല് മതി ആ ബാക്കി പിന്നെ സമയാസമയത്ത് വളവും ഇടണം പിന്നെ ചാണകവെള്ളം വല്ലതും കലക്കിയൊഴിക്കാനായിട്ട് അതും ചെയ്യണമല്ലോ ആ ആ

ആ ഇന്ന് ഞാൻ ചിലപ്പോഴെ പോകുകയുള്ളൂ അവിടെനിന്ന് അവിടെ അന്വേഷിച്ചിട്ട് അവിടെ ആളുണ്ടോയെന്നറിഞ്ഞിട്ട് ഓഫീസിൽ ആളുണ്ടോയെന്നറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അല്ലെങ്കില് പോകുന്നില്ല

അത് അല്ല അതൊന്ന് എടുത്തുവെച്ചേക്കൂ ഞാന് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകേണ്ടിവന്നാലോ ഉണ്ടെങ്കില് പെട്ടെന്ന് അവിടെ ചെന്നില്ലെങ്കില് ആളില്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തുവെച്ചേക്കൂ എന്നാല് പിന്നെ എളുപ്പമുണ്ടല്ലോ ആ പ്രിൻറ്റെടുത്ത് വെയ്ക്കാനുള്ളത് എന്താണുള്ളത് ആ ആ ആ എന്താണെടുക്കാനുള്ളത് ഞാന് മറന്നുപോയല്ലോ എന്താണുള്ളത് ആ മെയില് നോക്കേണ്ട മെയില് നോക്കേണ്ട ആ ഞാന് ആ പിള്ളേരുടെ ഏത് നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പിള്ളേരുടെ കയ്യില് കാണുന്ന കഞ്ഞിയുടെ ആണോ ആ ആ ആ അത് നമ്മളൊരു പ്രാവശ്യം കൊടുത്തേക്കൂ ഒന്നുകൂടെയൊന്ന് എടുത്തത് ഒന്നുകൂടെയൊന്നെടുത്ത് വെയ്ക്കുകയാണെങ്കില് അതങ്ങ് കൊടുത്തേക്കാമായിരുന്നു ആ നിലവിലെ അറ്റൻറ്റൻസ് നമുക്കിപ്പം അത് അതിൻ്റെ ഇടയ്ക്കാരും പോയിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ലെ അത് നമ്മുടെയടുത്ത് അതിൻ്റെ ലിസ്റ്റുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ ലിസ്റ്റ് ഉണ്ടെങ്കില്

ആ എന്നിട്ട് ഗ്രൂപ്പില് ആ ഗ്രൂപ്പില് അധ്യാപകർക്ക് ഇട്ടുകൊടുക്കാം അപ്പോള് അന്നേരം അവരൊന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റാണെങ്കില് നമുക്കതങ്ങെടുത്താല് മതിയല്ലോ

ആ എക്സ്പയറി ആയത് വല്ലതുമുണ്ടോ അതുണ്ടെങ്കില് കളഞ്ഞേക്കാമായിരുന്നു അതിനി വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ ആ ആ ആ ചോദിക്കാം ചോദിക്കാം ആ ചോദിക്കാം ആ ആ ആ അത് നോക്കാം അത് ചെയ്യാം ഗുളികകളൊക്കെ ഇനി പൊളിച്ച് ഒന്നുകൂടി എന്തൊക്കെ ഏതൊക്കെ അസുഖത്തിന് വേണ്ടതാണെന്ന് ഒന്നുകൂടെ ഒന്ന് ചോദിച്ച് ആക്കാം പിന്നെ വേറെയെന്താണ് ഇന്ന് ചെയ്യാന് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത് അത് നമുക്ക് തന്നെ നമുക്ക് തന്നെ ചെയ്യാനുള്ളതല്ലെയുള്ളൂ അത് മുറിച്ചിട്ട് വേണമെങ്കില് അത് കണക്ട് ചെയ്തിട്ടൊന്നാക്കിയാല് മതിയല്ലോ

ആ എന്നാല് വാങ്ങിച്ചേക്കൂ വാങ്ങിച്ചേക്കൂ വാങ്ങിച്ചേക്കൂ നോക്കിയിട്ട് എത്രയാണ് എത്ര സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങിച്ചേക്കൂ

അത് ചെയ്യാം ആ ക്ലീനിംഗ് ആ ക്ലീനിംഗിന് ആവശ്യമുള്ളത് നോക്കി വാങ്ങിച്ചോളൂ ലോഷനും പിന്നെ ബക്കറ്റ് ആ ലോഷൻ സോപ്പ് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊള്ളൂ കുഴപ്പമില്ല അത് വാങ്ങിച്ചിട്ട് ആ ബില് തന്നാല് മതി

ആ ആ ആ ആ യാ ആ ആ ആ ചെയ്യാം ഈ പ്രാവശ്യം നടാന് പറ്റുന്നത് എന്താണെന്നൊന്ന് അന്വേഷിച്ചിട്ട് അവിടെ പിന്നെ കൃഷി ഭവനില് ചോദിച്ചിട്ട് എന്താണ് പിന്നെ അതിന്റെ വളവും പറഞ്ഞു തരുമായിരിക്കുമല്ലോ ആ ആ ഇതവരെ വിളിച്ചൊന്ന് അറിയിച്ചേക്കൂ നമ്മള് നടുന്ന കാര്യമൊക്കെ ആ ശരി ആയിക്കോട്ടെ ആ